ഹലോ ആ ഇത് ഡോക്ടര് അല്ലേ ആ ഡോക്ടറേ എന്റെ പേര് അഭിജിത്ത് എന്നാണേ അപ്പോൾ എനിക്ക് ചെറിയ പനിയും തലവേദനയും ജലദോഷവും ഒക്കെ ഉണ്ടേ അപ്പോൾ എ രണ്ട് ദിവസമായേ ഉള്ളൂ തുടങ്ങിയിട്ട് വേറെ ചെറിയ മേലുവേദന ഉണ്ട് പനിയുണ്ട് പനിയുണ്ട് മൂക്കടപ്പ് ജലദോഷം തലവേദനയും മേലുവേദനയുമൊക്കെ ഉണ്ട് ആ രണ്ടു ദിവസം മുമ്പ് ഒന്ന് മഴ നനഞ്ഞിരുന്നു അലര്ജി ഈ മൂക്കടപ്പ് അങ്ങനെ ചെറിയ ഇതുണ്ടായിരുന്നു മൂക്കിൽ നിന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ചെറിയ അലര്ജിയുടെ ഒരു ഇത് ഉണ്ട് ആ പൊടി അടിച്ചാലും ഈ തണുപ്പടിച്ചാലും ഒക്കെയാണ് അങ്ങനെ വരുന്നത് ആ ഓക്കെ

പാരസെറ്റമോള് ഇല്ല ഇതുവരെ കഴിച്ചില്ല അപ്പോൾ ഡോക്ടര് ഒന്ന് റെഫര് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ഇതാക്കാം എന്ന് കരുതിയിട്ടാണ്

ഇല്ല വയറിനിങ്ങനെ വലിയ വീദ വേദനയൊന്നും അങ്ങനെയില്ല ആ ആ അതെ അല്ലേ ആ ഓക്കെ മാഡം